ഗ്രാമം ഓരോ ഗ്രാമത്തിലും ഒരോ ഗ്രൗണ്ടുണ്ടാകും എന്ന് പറയുന്നത് ശരിയാണ് അവിടെ എല്ലാ വൈകുന്നേരം ആകുമ്പോഴും ആ ഗ്രാമത്തിലെ മിക്ക യുവതലമുറ ആയാലും വലിയ ആൾക്കാരായാലും ഒത്തുചേരും അപ്പം അവിടെ കളിയ്ക്കാൻ പോകുക എന്ന് പറയുന്നത് നമുക്ക് ഒരു കളി അങ്ങനെ ഉള്ളതിനുപരി ഒരു നല്ല കുറേ സംഭാഷണങ്ങൾ ഉണ്ടാകാൻ പറ്റും അതുപോല തന്നെ ആ നാട്ടിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും മുതിർന്നവർ ആയിട്ടായാലും ചെറിയ ആൾക്കാരായിട്ട് വർത്തമാനം പറഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗത്ത് നിന്നുള്ളവരാണല്ലോ അവരൊക്കെ അപ്പം അവരെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളറിയാൻ പറ്റും പിന്നെ നമുക്ക് അവരോടുള്ള ഒരു കണക്ഷൻസ്സ് നന്നായി കിട്ടും പിന്നെ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇവർ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ അധികം നല്ല ഒരു കാര്യമാണ് ഈ ഗ്രാമ പ്രദേശങ്ങളിൽ കളിക്കാൻ പോണത് പിന്നെ ഇപ്പോളെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗ്രാമത്തിലിങ്ങനെ നല്ല ഗ്രൗണ്ടുകളൊന്നും ഇല്ലെങ്കിലും കുറേ സ്പോട്ട്കളുണ്ട് അപ്പോൾ അവിടെ പോയിരുന്ന് വർത്തമാനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പനിയായിട്ട് നല്ല രസമാണ് അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും പിന്നെ അവരായിട്ട് നല്ല കമ്പനി ആവാൻ പറ്റും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ തന്നെ വരുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ല കമ്പനി ആവുന്നത് നല്ലത് തന്നെയാണ് പിന്നേ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് അത് അവിടെ പറഞ്ഞ് തീർക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് അത് പറഞ്ഞ് റെഡിയാക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ വിഷയമാക്കിയിട്ട് ഓരോന്ന് പറഞ്ഞ് തീർക്കാം അപ്പം അതിനൊക്കെ നല്ലതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളിലുള്ള കളി തന്നെയാണ് പിന്നെ ഗ്രാമത്തിൽ കളിക്കുന്ന കുറേ ആൾക്കാർ കഴിവുകൾ കണ്ടെത്തിയിട്ടങ്ങനെ പറന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് നല്ല ജോലികളും കിട്ടിയിട്ടുണ്ട് പിന്നേ നമ്മൾ മനിഷ്യന്മാർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ അല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ കുറെ അധികം സന്തോഷങ്ങൾ കിട്ടും പിന്നെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പറ്റും അതൊക്കെ ഈ ഗ്രാമ പ്രദേശങ്ങളിൽ കളിക്കുന്നതിൻ്റെ ഒരു ഗുണങ്ങളാണ് പിന്നെ മിക്ക ആൾക്കാർ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോൾ അവിടെ വരുന്നത് ഇപ്പോൾ കഴിക്കാനോ അങ്ങനെ കായികമായുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും അല്ല ഇങ്ങനെ ചങ്ങായിമാരായിട്ട് ഇരിക്കുക കമ്പനി അടിച്ചിരിക്കുക അവിടെ പോകുക ചായ കുടിക്കുക അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങടവടൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കും അപ്പം അത് തന്നെ അങ്ങനെ അതാണ് നല്ലത് ഗ്രാമപ്രദേശങ്ങളിലെ കളി വളരെ അധികം നല്ല ഒരു സംഭവമാണ്